മലയാളം സംസാരിക്കാത്ത ആൾക്കാരടുത്ത് നമ്മൾ കൂടുതലായിട്ടും ആംഗ്യ ഭാഷകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇപ്പം മലയാളം സംസാരിക്കാനറിയാത്തവർ ഇംഗ്ലീഷ് കാരാണ് വന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളോംകൂടെ കൂടി കലർത്തിയാണ് സംസാരിക്കുക പക്ഷേ അവർക്കും മനസിലാകാറില്ല നമുക്കും മനസിലാകാറില്ല അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പം ചില കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടന്ന് പിടികിട്ടും കാരണം ചെറുതായിട്ടെങ്കിലും അവർക്ക് മലയാളം അറിയാം ഇപ്പോൾ ഇവിടെ വരുന്ന ചില ഇംഗ്ലീഷ്കാർക്കൊക്കെ അപ്പോൾ ചിലരെടുത്ത് നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാലിപ്പോൾ ഇംഗ്ലീഷും മലയാളോം കൂടെ കൂടി കലർത്തി പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസിലാകാറുണ്ട് പക്ഷേ ചിലർക്കങ്ങനെ മനസ്സിലാകാറില്ല അപ്പം പിന്നെ ആംഗ്യ ഭാഷേലാണ് കൂടുതലും പറയാ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വഴി ചോദിക്കുവാണെങ്കിൽ നേരെ പോകാൻ വേണ്ടീട്ടൊക്കെ പറയാൻ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും സ്ട്രെയ്റ്റ് പോയാൽ മതീന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും ചിലർ ചിലർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെയുണ്ട് ചിലർക്ക് ഇംഗ്ലീഷും അറിയില്ല അപ്പം ഈ ഹിന്ദിയൊക്കെ വന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ ഇപ്പോൾ വഴിയൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുവൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകാറുണ്ട് മലയാളത്തിൽത്തന്നെ നമ്മൾ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മലയാളികൾക്ക് അവർ അവരുടെ അവരെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആശയ വിനിമയം നടത്താൻ വേണ്ടീട്ട് സാധിക്കാറുണ്ട്